മുപ്പത് നാല് ആയിരത്തി തൊള്ളായിരത്തി ഏഴുപത്തിയൊമ്പത് എട്ട് ഒൻപത് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല്

ഏഴ് ഒമ്പത് രണ്ടായി രണ്ടായിരം ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്